ഗ്രാമങ്ങളിൽ കളിക്കുന്ന ആദ്യത്തെ കളി ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്നു വച്ചാൽ ഒര് ആറ് സ്റ്റമ്പും രണ്ട് ബാറ്റും ഒരു ബോളും ഉപയോഗിച്ചിട്ട് പതിനൊന്ന് പ്ലേയർസും പതിനൊന്നു പ്ലേയർസ് ഉണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ പതിനൊന്ന് പ്ലേയർസ് ഫീൽഡും ഒരു ഒരു ബോളർ ഫീൽഡിൽ പത്തു പേരും ഒരു ബോളറും ഒരു കീപ്പർ രണ്ടു ബാറ്റ്സ്മാന്മാർ ഇറങ്ങുന്നു ഒര് രണ്ട് പേരും ആ ആറോവർ കളിയിൽ പത്ത് ഓവർ കളിയൊക്കെയായിരിക്കും അവരടിക്കുന്ന റണ്ണ് നമ്മൾ ചെയ്സ് ചെയ്യുന്നു ചെയ്സ് ചെയ്യുന്ന ടീം ജയിക്കുന്നു ചേസ് ചെയ്തില്ലെങ്കിൽ ആ ടീം തോൽക്കുന്നു അതേപോലെ രണ്ടാമത്തെ കളിയാണ് ഫുട്ബോൾ ഫുട്ബോളിൽ രണ്ട് എന്താ പറയുക ഗോൾ പോസ്റ്റും പിന്നെ ഒരു ബോളും രണ്ട് ടീമിലും കൂടി ഇരുപത്തിരണ്ട് പേരും ഇരുപത്തിരണ്ട് പേരിൽ രണ്ട് ഗോൾ കീപ്പറും ഉണ്ടാവും ഏറ്റവും സ്കോർ ചെയ്യുന്ന ടീം വിജയിക്കുന്നു ഇതൊക്കെയാണ് ഗ്രാമങ്ങളിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗെയിംസ് ഇത് ഇതിൽ കുറേ ടൂർണമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ അതിലിപ്പോൾ ചിലർക്ക് ക്രിക്കറ്റ് ഇഷ്ടപ്പെടാം ചിലർക്ക് ഫൂട്ബോൾ ഇഷ്ടപ്പെടാം രണ്ട് കാറ്റഗറിയും കളിക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് കാറ്റഗറിലും പതിനൊന്ന് പതിനൊന്ന് ആൾക്കാരെ വെച്ചാണ് കളിക്കുക